ആ എന്തായിരുന്നു ആ അതെ അത് എന്തായിരുന്നു പറഞ്ഞോളൂ രണ്ട് മൂന്ന് ദിവസമായോ തുടങ്ങിയിട്ട് എന്തെങ്കിലും മെഡിസിൻ എടുക്കുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ മെഡിസിൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് അത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ ആവിയോ ആവി പിടിക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ തുടക്കത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം എത്ര ദിവസമായി തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അല്ലേ ചുമയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആ ജലദോഷം ഉണ്ടോ എന്ന് നല്ലപോലെ നല്ലപോലെ വരുന്നുണ്ട് അല്ലേ അങ്ങനെ ആണെന്ന് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് മെഡിസിൻസ് പറയാം അതൊന്ന് തൽക്കാലം കഴിച്ച് നോക്ക് പിന്നെ ആവി പിടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തോളൂ നല്ലപോലെ അപ്പോൾ ഇപ്പം മെഡിസിൻസ് കാര്യങ്ങൾ ആയിട്ട് പാരസെറ്റാമോൾ കാര്യങ്ങൾ ഒക്കെ പ്രിഫെർ ചെയ്യാം പിന്നെ നല്ലപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം നല്ല ഹെൽത്തി ഫുഡ് കാര്യങ്ങളൊക്കെ വിറ്റാമിൻസ് ഉള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കി അതിന് അനുസരിച്ച് കഴിക്കുക ഒക്കെ ചെയ്യണം ആ അത് കഴിഞ്ഞിട്ട് കുറയുന്നില്ലെങ്കിൽ ക്ലിനിക്കിലേക്ക് ഒന്ന് വരുകയും ചെയ്യണം അത് കുറച്ച് ദിവസം ഒന്ന് ഒരു ഒരു ദിവസം കൂടെ ഒന്ന് നോക്ക് അത് കഴിഞ്ഞിട്ടും കുറയുന്നില്ലെന്ന് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ച് നല്ലപോലെ റെസ്റ്റ് എടുക്ക് അത് കഴിഞ്ഞിട്ട് കുറയുന്നില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്ന് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം അത് ചെയ്തിട്ട് ഓക്കെ ആണോ എന്ന് നോക്കാം നമുക്ക് പിന്നെ കഫക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നല്ലപോലെ തലവേദനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടല്ലേ വൈറൽ ഫീവറിൻ്റെ ആയിരിക്കും അപ്പം അങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കേണ്ട ഉടനെ തന്നെ മെഡിസിൻ എടുത്ത് നോക്കുന്നത് ആണ് നല്ലത് ഇപ്പം ഇപ്പം തന്നെ രണ്ട് ദിവസം ആയില്ലേ ആ ഞാൻ അപ്പം നല്ല പോലെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ച് നല്ല പോലെ റെസ്റ്റ് എടുക്കുകയും ചെയ്യുക മെഡിസിൻസ് പ്രിഫെർ ചെയ്യുന്നത് കുറേ ടൈമിന് കാര്യായിട്ട് കഴിക്കുകയും ചെയ്യുക പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനത്ത ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് ആ ഇപ്പോൾ എത്ര ഏജ് വരുന്നത് ആണ് ആ പതിനെട്ട് വരുന്നുണ്ടല്ലേ ഓക്കെ അങ്ങനെ ആണെന്ന് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ മെഡിസിൻസ് കാര്യങ്ങൾ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന മെയിനായിട്ട് ഇത് അയച്ചുതരാം തൽക്കാലത്തേക്ക് ഉള്ള മെഡിസിൻ ആണ് ഒരു കഴിച്ച് നോക്ക് ഒരു ദിവസം കഴിച്ച് നോക്ക് എന്നിട്ട് കുറയുന്നില്ല എന്ന് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നാളെ തന്നെ വന്ന് ഹോസ്പിറ്റൽ വന്നിട്ട് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നത് ആണ് നമുക്ക് ഓക്കെ അങ്ങനെ ആണെന്ന് നോക്കിയിട്ട് ഇത് ആക്കിയാൽ മതി നാളെ തന്നെ അങ്ങനെ ആണെങ്കിൽ ക്ലിനിക്കിലേക്ക് അല്ലെങ്കിൽ നേരെ കുറഞ്ഞിട്ട് ഇല്ലെങ്കിൽ രാവിലെ തന്നെ ക്ലിനിക്കിൽ വന്നിട്ട് നമുക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കൗണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എന്തെങ്കിലും വേണ്ടതെന്ന് ഉണ്ടെങ്കിൽ ഈ മെഡിസിൻസ് കാര്യങ്ങൾ ചെയ്തുതരാം കേട്ടോ അപ്പം നോക്കിയിട്ട് ഒരു ദിവസം നോക്കിയേക്ക് ആ ഓക്കെ